ഇവിടെ ജലക്ഷാമം ജലക്ഷാമം വന്നിട്ടുണ്ട് കൂടുതലായിട്ടും ഈ പ്രദേശത്ത് ജലക്ഷാമം ഉണ്ടായിട്ടുണ്ട് അപ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം എടുക്കാൻ എങ്ങുന്നും ഇല്ല എല്ലാ വീടുകളിലും ഒരുപോലെ ജലക്ഷാമമാവുകയാണ് നമുക്ക് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ വെള്ളം എടുക്കാനോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും പറ്റുന്നതല്ല പറ്റത്തില്ല അപ്പം ജലക്ഷാമം ഉണ്ടാകുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ജീവിതത്തെ ബാധിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ ഇങ്ങനെ വെള്ളം സൂക്ഷിച്ച് ഉപയോഗിച്ച് കുറച്ച് വീതം ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് പരിമിതമായിട്ട് ഒരു ജീവിതം നയിക്കേണ്ടി വന്നിട്ടുണ്ട്